മലയാള ഭാഷയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെക്കുറിച്ച് പറയാണ് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷ ഇപ്പോൾ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മലയാളി ഒരുപാട് കടുകട്ടിയുള്ള വാക്കുകളാണ് പിന്നെ വ്യാകരണം അങ്ങനത്തെ എന്ത് നമുക്ക് പുതിയ ഒരാൾക്കാർക്ക് പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പറയാനും ബുദ്ധിമുട്ടുള്ള ഭാഷയാണ് എന്നാണ് പൊതുവേ എല്ലാവരും പറയണത് പക്ഷേ അങ്ങനെ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയുടെ കുറച്ച് ന്യൂനതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചില സാ സാഹചര്യങ്ങൾ മൂലം അവർക്ക് അത് ആ ഉച്ചാരണ ശുദ്ധി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരേണ്ട സമയത്ത് നമുക്ക് അവർക്ക് ഇത് പുതിയ ഒരാൾക്ക് മലയാളം അറിയാത്ത ഒരാള് അല്ലെങ്കിൽ കേൾക്കാത്ത ഒരാൾക്ക് അത് ബുദ്ധിമുട്ട് ആയിട്ട് തന്നെ തോന്നും എന്നാൽ അത് നമുക്ക് കുറച്ചു കാലം കൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എന്താ പറയുക ചെറിയ ചെറിയ ചെറിയ കാലയളവിൽ തന്നെ നമുക്ക് അത് പരിഹരിക്കാവുന്ന ഒരു കേസാണ് അവർക്കൊരു ഒന്നോ രണ്ടോ ദിവസത്തെ അവരുടെ പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് അത് സിമ്പിൾ ആയിട്ട് അവർക്ക് അത് ക്യാച്ച് ചെയ്ത് എടുക്കാനും മലയാള ഭാഷ കൃത്യമായിട്ട് എങ്ങനെയാണ് ഉച്ചാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു തരത്തിലുള്ള ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ